എനിക്ക് വളർത്താൻ ഇഷ്ടം പൊതുവെ ചെടികൾ വളർത്തുന്നതിൽ വലിയ താൽപര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽപ്പോലും ഒരിഷ്ടം തോന്നിയിട്ടുള്ളത് പച്ചക്കറികളോടാണ് പച്ചക്കറികളാണെങ്കിൽ വീട്ടിൽ വെണ്ട പച്ചമുളക് തക്കാളി കോവയ്ക്ക വഴുതന എന്നിങ്ങനെയുള്ള ഒരുപാട് വിധം പച്ചക്കറികൾ ഉണ്ട് അതിനോടൊരു താൽപര്യം തോന്നാറുണ്ട് പച്ചക്കറികളെല്ലാം നമ്മൾ നട്ടുനനച്ച് അതിൽ അതിൽ കായകൾ എല്ലാം എടുത്ത് കറിവയ്ക്കുന്ന സമയത്ത് ഒരു സന്തോഷം തോന്നാറുണ്ട് ഇതിനപ്പുറത്തേക്ക് വലിയ തോതിൽ ചെടി വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ